എനിക്ക് ഒരു യോഗ ധ്യാന റിട്രീറ്റിൽ ചേരാൻ താല്പര്യമുണ്ട് അത് എങ്ങനെയാണത് ചെയ്യേണ്ടത് എവിടെയാണത് ചേരേണ്ടതെന്നൊന്ന് വിളിച്ചത്തിന്റെ വിശദാംശങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു അത് എൻ്റെ കാര്യം എനിക്ക് ഒരു നാൽപ്പത് വയസ്സായ വീട്ടമ്മയാണ് ഞാൻ എനിക്കൊരു മാക്സിമം ഇതിനൊരു ആയിരം രൂപ ചിലവാക്കാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെണെന്നൊക്കെ ഒന്ന് നിങ്ങളൊന്ന് അറിയാനെനിക്ക് ആഗ്രഹമുണ്ട് കാരണം യോഗയൊക്കെ ചെയ്യുമ്പോഴേക്കും ഒരു ധ്യാനത്തിന് കൂടുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനൊരു റീഫ്രഷ്മെൻറ് ഉണ്ടാകും അതിന് വേണ്ടിയിട്ടാണ്